എനിക്ക് പാട്ടുകളോട് ഭയങ്കര താൽപര്യം കൂടുതലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പാട്ടുകളോട് ഇപ്പോൾ താൽപ്പര്യം എന്ന് പറഞ്ഞാൽ പഴയ പഴയ പാട്ടുകളോടാണ് ഞാൻ ഒഴിവുസമയങ്ങളിൽ വെറുതെ ഇരിക്കുന്ന ടൈമുകളിൽ ഞാൻ പാട്ട് ഒരുപാട് യൂട്യൂബ് യൂട്യൂബിൽനിന്ന് അകത്തൊക്കെ പാട്ടിട്ട് പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഒരുപാട് നേരം യൂട്യൂബിൽ പഴയ പാട്ടുകൾ അതായത് പ്രേംനസീർ അങ്ങനെയുള്ള പഴയ പഴയ പാട്ടുകൾ ഒരുപാട് ഞാൻ കേൾക്കാറുണ്ട് യൂട്യൂബിന്നാത്തോക്കെ ഇട്ട് നല്ല കുറേനേരം ഒഴിവ് ഒഴിവുസമയങ്ങളിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് യൂട്യൂബിനാത്തും അങ്ങനെ റെഡിയാവും എങ്കിലൊക്കെ ഇതിൽ വെച്ച് ഒരുപാടുനേരം ഇരുന്ന് പാട്ടുകളൊക്കെ കേൾക്കാം എനിക്ക് പാട്ടിനോട് ഭയങ്കര താൽപ്പര്യമാണ് പഴയ പാട്ടുകൾ അങ്ങനെ അടിച്ചുപൊളി പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകളോട് എനിക്ക് വലിയ രീതിയിലുള്ള ഇഷ്ടമാണ് ഞാൻ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ താൽപ്പര്യം ഉള്ള ഒരു കൂടുതൽ നേരം പാട്ടുകളിലൂടെ കേൾക്കാൻ താൽപ്പര്യമുള്ള ഒരാളും കൂടിയാണ്